ആ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ഓ രവി ആ രവി ചേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചു കാരണം ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളാണ് എനിക്കിവിടത്തെ റൂട്ടുകളോ വഴികളോ ഒന്നും അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ കോഴിക്കോട് നഗരത്തിൽ എത്തിയത് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ചേട്ടൻ എന്നെ കറക്റ്റ് സ്ഥലത്തു തന്നെ എത്തിച്ചു അവൾ ഇവിടെ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി ഇവിടെ എത്തിച്ചതിനു ചേ ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ ഇത്ര അധികം സഹായിക്കത്തില്ലായിരുന്നു രവി ചേട്ടൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര അധികം കെയറ് തന്നതും എല്ലാം എനിക്ക് വളരെ പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ വണ്ടി കയറുമ്പോഴ്ത്തേക്ക് ഇനി എങ്ങനായ് തീരും കറക്റ്റ് എത്തിചേരാൻ പറ്റുവോ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമോ എല്ലാം ഇന്നത്തെ കാലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കാനും പറ്റത്തില്ലലോ പക്ഷേ ചേട്ടൻ നല്ല മാന്യമായിട്ട് തന്നെ പെരുമാറി ഇടപെടലും എല്ലാം വളരെ മാന്യമായിരുന്നു അതിനു ഒരുപാട് നന്ദി ഉണ്ട് ചേട്ടൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാന്ന് ആണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ ഈ പെരുമാറ്റരീതി തുടർന്നും പോകുക ഇങ്ങനെ തന്നെ പോകുക ഒറ്റപ്പെടുന്ന സമയങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഇങ്ങനെ തുണയായിട്ട് നിൽക്കുക അതെ അതെ അങ്ങനെ തന്നെ പോവുക വളരെ നന്ദി ചേട്ടാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇനി ഒരു പക്ഷേ ഇനി വീണ്ടും ഞാൻ ഈ നഗരത്തിൽ എത്തിയാൽ ചേട്ടൻ്റെ വണ്ടി തന്നെ വിളിക്കുന്നതായിരിക്കും അതെ ഈ കോഴിക്കോട് ഇനി എന്ന് എത്തിയാലും ഞാൻ ചേട്ടനെ ചേട്ടനെ വിളിക്കുന്നതായിരിക്കും ചേട്ടൻ എൻ്റെ എനിക്ക് വേണ്ടി വരണം എത്തിച്ചേ കൃത്യമായ സ്ഥലത്തു തന്നെ എത്തിച്ചേർക്കുകയും ചെയ്യണം ഓക്കെ ചേട്ടാ നന്ദി